കൂടുതൽ ദിവസങ്ങളില് നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കില് ഒര് നമ്മള് പോവുമ്പം വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് പോകും പിന്നെ പിന്നെ നമ്മള് വരാൻ അത് അത് അധിക ദിവസം വൈകിയാല് അടുത്തുള്ള ആരോടെങ്കിലും പറയും അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിനോട് പറയും ആ ചേച്ചി വന്നിട്ട് വെള്ളം ഒഴിക്കും പിന്നെ നങ്ങളിപ്പോൾ ഇനി ഒരാഴ്ചയില് ആണെങ്കിലും അവര് രണ്ട് ദിവസം വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പൊയ്ക്കോളും പിന്നെ അപ്പോൾ ചെടികള് കുഴപ്പമില്ലാണ്ട് വളർന്നോളും